ഇപ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിന് വേണ്ടി പൊതുവേ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്ന സർക്കാരും എല്ലാരും ഒത്താശ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം കോർപ്പറേറ്റുകളെ ഒരുപാട് വളരാൻ അനുവദിക്കുകയും അതേപോലെ സാധാരണ താലൂക്ക് തലത്തിലൊ ജില്ലാ തലത്തിലൊ അതല്ലെങ്കിൽ മറ്റു തലങ്ങളില് പ്രവർത്തിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര വികസനങ്ങളും കാര്യങ്ങളും നൽകാതെ കോർപ്പറേറ്റുകളെ വരൾ വളർത്തുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതെന്താന്ന് വെച്ചാല് കാരണം അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ അവര് നല്ല ഫണ്ടിറക്കി ഒരുപാട് നല്ല എക്യുപ്മെൻസും അതേപോലെ

അതേപോലെ വലിയ വലിയ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ച് ഹോസ്പിറ്റൽസ് വികസിപ്പിക്കുമ്പോൾ അതേ തലത്തിൽ തന്നെ വികസിക്കേണ്ട നമ്മുടെ സർക്കാർ ആശുപത്രികൾ കൂപ്പുകുത്തുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഒന്ന് രാഷ്ട്രീയ പാർട്ടികളും അതേപോലെത്തന്നെ വികസന വികസനം മുന്നിൽ കാണുന്ന ഭരണകർത്താക്കളും ഒന്ന് മനസ്സുവെച്ചാല് എന്നോ നന്നാക്കേണ്ടിയിരുന്ന പല സർക്കാർ ആശുപത്രികളും ഇന്ന് ഒന്നുമൊന്നും ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് കാണണത് അപ്പൊൾ അതൊക്കെ മാറേണ്ട മാറ്റേണ്ട സമയം ഒക്കെ അതിക്രമിച്ചു കഴിഞ്ഞു അതൊക്കെ ഭാവിയിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇപ്പൊൾ എല്ലാവർക്കും ഇതേ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് തന്നെ ബന്ധപ്പെടാൻ പറ്റി പറ്റണമെന്നില്ല കാരണം അന്നന്ന് കൂലിപ്പണി ചെയ്ത് അന്നന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ശാ ശാശ്വതം ആയിട്ടുള്ളത് ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽസ് തന്നെയാണ് പക്ഷേ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽസ് ഒന്നും വേണ്ടത്ര പുരോഗമനം ഈയിടെ ഉണ്ടാകുന്നില്ല അത് വല്ലാത്ത ഒരു പോരായ്മ തന്നെയാണ്